നമ്മുടെ ഈ പ്രപഞ്ചത്തില് ഒരുപാട് കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് പിന്നെ രാത്രി ആകാശത്തു കാണുന്ന എണ്ണാൻ കഴിയാത്തതിലത്രം നക്ഷത്രങ്ങളൊക്കെ ഭയങ്കര ആകർഷകമാണ് അതില്ത്തന്നെ വേട്ടക്കാരൻ എന്നു പറയുന്നൊരിതുണ്ട് അതിൻ്റെ വേട്ടക്കാരൻ്റെ തോളില് കാണുന്ന ആ ചുവന്ന നക്ഷത്രം തിരുവാതിര എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത് പിന്നെ രാത്രി കാണുന്ന പൂർണ്ണചന്ദ്രന് ഇതൊക്കെ ഭയങ്കര ആകർഷകമായ കാര്യങ്ങളാണ് മേഘങ്ങളൊക്കെ നല്ല ആകർഷകമാണ് മേഘങ്ങളിൽത്തന്നെ പല പല മേഘങ്ങളുണ്ട് തൂവല് പോലെയുള്ള മേഘം ഉണ്ട് മീൻ്റെ ചെതളുകള് പോലെയുള്ള മേഘമുണ്ട് ക്യുമുലസ് മേഘങ്ങള് അങ്ങനെ ഒരുപാട് ആകർഷകമായ വസ്തുക്കള് നമ്മുടെ പ്രപഞ്ചത്തില് ഉണ്ട് പിന്നെ പകലുള്ള സൂര്യൻ്റെ വെളിച്ചം ഇവയൊക്കെ ഭയങ്കര ആകർഷകമാണ്